ഹലോ നമസ്കാരം

ആ കേൾക്കുന്നുണ്ട് നമസ്കാരം ടീച്ചർ അനഫാമിൻറ്റെ ഉമ്മേണ് ആ ഇന്നലെ എനിക്കൊരു മീറ്റിങ്ങുണ്ടായിരുന്നു ഒരു അവളെ ബ്രദറിൻറ്റെ ഒരു മീറ്റിങ്ങുണ്ടായിരുന്നു സ്കൂളിൽ അപ്പോൾ ഒഴിവാക്കാൻ കഴിയാത്തൊരു മീറ്റിങ്ങായിരുന്നു അത്കൊണ്ട് വരാൻ പറ്റീല ആ അതെ പിന്നെ അവൾക്കെങ്ങനെ ഉണ്ട് മാർക്കൊക്കെ എങ്ങനെ

ആ അത് അവൾ അങ്ങനെന്നെ ആണ് പൊതുവെ അങ്ങനെയാണ് അത് എല്ലാ ടീച്ചേഴ്സും പറയാറുള്ളതന്നെയാന്ന് ആ ആ അവൾ വീട്ടിൽ വന്നാൽ എഴുതണം പഠിക്കണൊക്കെ ഉണ്ട് പക്ഷേ സംസാരിക്കൽ അതാണ് കുറച്ച് ഉള്ള പ്രശ്നം

ആ ഓക്കേ ഓക്കേ അ ആ ആ ആ ഓക്കേ പറയാം പിന്നെ മറ്റേ സബ്ജറ്റ് എല്ലാം സബ്ജറ്റും എങ്ങനേണ്ട്ന്ന് അറിയില്ലേ ടീച്ചറിന് അറിയോ അത് മറ്റേ ടീച്ചേഴ്സ് പറയുന്ന കേട്ടിട്ടുണ്ടോ എന്തെങ്കിലും ആണല്ലേ പിന്നെ ആ അത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ആ എന്നാണ് അവളുടെ പരിപാടി വരുന്നത്

ആ ആ ആ ആ ഓക്കേ ഓക്കേ ആ ഉണ്ട് ഉണ്ട് അതിൻറ്റെ ക്ലാസ്സും കോച്ചിങ്ങോക്കെ സ്കൂള്ന്ന് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവൂല്ലേ ആ ഓക്കേ പിന്നെ അവൾ കൊണ്ടന്ന ഫുഡൊക്കെ അവിടുന്ന് കഴിക്കണണ്ടോന്ന് എന്താന്നറിയില്ലല്ലേ അത് ശ്രദ്ധിക്കലൊണ്ടോന്നാവോ

ആ ആ ആ ആ അതൊന്ന് ടീച്ചറൊന്ന് പറയോന്തോ അവളടുത്ത് ഭക്ഷണം കഴിക്കാൻ ആ ടൈമിലൊന്ന് ടീച്ചർ കാണേണങ്കിൽ ഒന്ന് പറഞ്ഞ് കൊടുക്കോലോ ആ ആ ആ ആ ആ പറയാ

ആ മടി ആ മടിയല്ല അവൾ സ്വയം തോന്നിയാൽ അങ്ങനെ ഇരുന്ന് പഠിക്കും നമ്മൾ നിർബന്ധിച്ചാൽ അവൾ പഠിക്കാൻ കുറവാണ് നമ്മൾ പറഞ്ഞ് നമ്മൾ പറയാതെ അവൾ സ്വയം ഇരിക്കുവാണെങ്കിൽ പിന്നെ അവൾക്ക് ഇഷ്ടത്തിനങ്ങനെ ഇരുന്ന് പഠിക്കും നമ്മൾ നിർബന്ധിച്ചാൽ ചിലപ്പം ഇരിക്കലിണ്ടാവില്ല ഹോം വർക്കും ഒക്കെ ആ ആ ആ ആ ആ ഓക്കേ ശ്രദ്ധിക്കാം

ആ ആ ശ്രദ്ധിക്കാം

ആ ആ കണ്ടിരുന്നു ഇപ്പം രണ്ടുപേരുടേം മീറ്റിങ്ങും ഒരു ടൈമിലായതുകൊണ്ട് എനിക്ക് അപ്പോൾ അവന് പത്താം ക്ലാസ്സിലായതുകൊണ്ട് അവന്ക്ക് നമ്മൾ ഒന്നുംക്കൂടി ഇത് കൊടുക്കേണ്ടതല്ലേ അത്കൊണ്ടാണ് അതിനു പോവ പോയത്

ആ കൊടുത്തയക്കുന്നുണ്ട് പക്ഷേ പാൽ കുടിക്കാൻ മടിയാണ് വാങ്ങുന്നുണ്ടോന്ന് അറിയില്ല

ആ അ അത് ഡെയിലി കൊടുത്തയക്കലുണ്ട് പക്ഷേ അവൾ വാങ്ങുന്നുണ്ടാവില്ല അവൾക്ക് ഇഷ്ടമല്ല പാൽ വാങ്ങിയാലും വേറെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാന്ന് പറഞ്ഞേന്

ആ

ആ ആ ആ അത് പറയാം അവളടുത്ത് പറയണ്ട് ടീച്ചറൊന്ന് അവിടുന്ന് ശ്രദ്ധിച്ചാൽ മതി അവൾ കുടിക്ക്ണ്ണ്ടോന്നുള്ളത് ഞാൻ സൈൻ ചെയ്യണ്ടേ ആ ഓക്കേ ഞാൻ നാളെ ഒരു ഉച്ചക്ക് മുമ്പേ വരാൻ പറ്റൂലേ എപ്പളാ വരണ്ടത്

ഓക്കേ ആ ഓക്കേ ഉച്ചക്ക് ശേഷം വരാം വേറെന്താ ഒന്നുല്ലല്ലോ

ആ ആ അത് എഴുത് എഴുതുന്നുണ്ട് ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ

ആ ആ ആ ആ ഓക്കേ ആ ആ ആ ഓക്കേ ആ ആ ശരിയാക്കാം ആ ആ ആ വരാം

ഓക്കേ ശരി